ഹലോ ആ പറഞ്ഞോളൂ ആ അതെ ആ ബ്രോ ഡാഡി ഓടുന്നുണ്ട് അഞ്ച് ടിക്കറ്റോ അഞ്ച് നമുക്ക് ഒരുമിച്ച് ഇരിക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് ആയിരിക്കും കാരണം ഓൾമോസ്റ്റ് എല്ലാം ഫുൾ ആണ് ഇപ്പം നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ആണ് ഉള്ളത്

ആ ഓക്കെ ഓക്കെ അപ്പോൾ കുട്ടികള മാറ്റി തന്നെ ഇരുത്തേണ്ടി വരും നൈറ്റ് ആണ് ഫുൾ ആയി ഇരിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പം രാവിലെ ഇല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലത്തേക്ക് വേണമെങ്കിൽ ബുക്ക് ചെയ്തുതരാം കുഴപ്പം ഒന്നും ഇല്ല പിന്നെ നിങ്ങൾ കൂടുതൽ ആയിട്ട് ഇപ്പം ഓൺലൈൻ സൈറ്റിൽ ഒക്കെ ആണ് ഇപ്പം എല്ലം ബുക്കിംഗ് കാര്യങ്ങൾ ഒക്കെ വരുന്നത് പതിനൊന്നരയ്ക്കാണ് പിറ്റേ ദിവസം നൈറ്റോ ദിവസം നൈറ്റ് ആ പിറ്റേ ദിവസം നൈറ്റ് ആണെങ്കിൽ ഇന്നുതന്നെ ബുക്ക് ചെയ്യാണെങ്കിൽ പിറ്റേ ദിവസം നൈറ്റ് കിട്ടും കാരണം നല്ല നല്ല രീതിയിൽ ഓടുന്നൊരു പടം ആണ് അപ്പം പെട്ടെന്ന് ഫിൽ ആവാനും ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് ആണ് ഞാൻ ഇപ്പം തന്നെ വേണെ ഇപ്പം തന്നെ വേണമെങ്കിൽ ബുക്ക് ചെയ്യാം

ആ എയിൽ തന്നെ ആക്കിത്തരാം പക്ഷേ സംഭവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും അതായത് ഇപ്പം നൂറ്റി ഇരുപത് ആണ് സാധാരണ ടിക്കറ്റ് ചാർജ് അപ്പം അതിന്റെ കൂടെ പത്ത് രൂപ എക്സ്ട്രാ വരും ആ വരും പക്ഷേ അത് ബുക്ക് ചെയ്ത് വയ്ക്കാനോ ഓക്കെ ഓക്കെ ഇല്ലെങ്കിൽ നിങ്ങൾ ആപ്പിൽ ആപ്പ് ആപ്പ് വഴി ബുക്ക് ചെയ്യാണെങ്കിൽ അത് ആയിരിക്കും കുറച്ചും കൂടെ എളുപ്പം അത് ആണെങ്കിൽ സീറ്റ് നോക്കി തിരഞ്ഞെടുത്തിട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം നമ്മളെ ബുക്ക് മൈ ഷോ എന്ന് പറഞ്ഞിട്ട് ഉള്ള ആപ്പ്ളിക്കേഷൻ ഇല്ലേ ആ ബുക്ക് മൈ ഷോ എന്ന് പറഞ്ഞിട്ട് ഉള്ള ആപ്പ്ളിക്കേഷൻ ഉണ്ട് അതിനകത്ത് കയറിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബുക്ക് ചെയ്താൽ മതി ആ അതെ അതെ ബുക്ക് മൈ ഷോ എന്ന് പറഞ്ഞിട്ട് ഇല്ല നാളത്തേക്ക് ഇത് വരെ ഫുൾ ഒന്നും ആയിട്ടില്ല ഇല്ല ഇല്ല ഫുൾ ആയിട്ടില്ല ആ ആപ്പ്ളിക്കേഷനിൽ കയറിയിട്ട് ബുക്ക് ചെയ്താൽ മതി മേഡം ആ ഇപ്പം തന്നെ ചെയ്തോ ഓക്കെ ഓക്കെ